ആ കെ ആർ ഫ്ളവേഴ്സ് അല്ലെ ആ എനിക്ക് ഫ്ളവേഴ്സിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് അറിയാനായിരുന്നു ആ നാളെ എനിക്ക് ഒരു ഇവൻ്റ് ഉണ്ട് വീട്ടിൽ എൻഗേജ്മെൻ്റ് ഫങ്ക്ഷനാണ് അപ്പോൾ ഫ്ളവേഴ്സ് ആ തീം ഉണ്ട് ഉണ്ട് ഐവറിയും റെഡ്ഡുമാണ് ഉദ്ദേശിക്കുന്നത് ആ ഫ്ളവേഴ്സ്സോക്കെ അവൈലബിൾ ആണോ നാളെ തന്നെ വേണമായിരുന്നു ആ വേണം വേണം ഒരു പതിനൊന്നരക്കൊക്കെ ആയിട്ട് വേണ്ടിവരും ആ അത് എങ്ങനെയാണ് മിക്സ് നല്ല പോലെ ഫുള്ളി സെറ്റ് ചെയ്തു തരില്ലേ അങ്ങനെയും ചെയ്യും അല്ലേ ആ ആ അ അ ആ ആ എനിക്ക് അപ്പോൾ വേണ്ടത് എനിക്ക് അപ്പോൾ വേണ്ടത് ഡോറിൻ്റെ ആ ഒരു ഡോർ അല്ല സോറി ഗേറ്റിൻ്റെ ആ ഒരു ഭാഗമായിട്ട് അവിടെ എൻട്രി പോലെ ഒരു ആർച്ചിൽ ഫ്ളവേഴ്സ് ഫുള്ള് ഫ്രഷ് ഫ്ളവേഴ്സ് ഫുള്ള് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തു വയ്ക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ആ എന്ന് ആ പിന്നെ വോക്ക് വോക്ക് വേയിലും ഫുള്ള് ആയിട്ട് പിന്നെ ഇങ്ങനെ വേണം ഫ്ളവേഴ്സ് അറേഞ്ച്മെൻ്റ് പിന്നെ പിന്നെ റഫറൻസ് പിക് അല്ലെ ആ റഫറൻസ് പിക്ചർ ഞാൻ അയച്ചു തരാം ഞാൻ ഉദ്ദേശിക്കുന്നത് സ്റ്റേജിൻ്റെ ആ ഈ നമ്പറിൽ തന്നെ വാട്സ്ആപ്പ് ചെയ്യാം ഞാൻ ഉദ്ദേശിക്കുന്നത് സ്റ്റേജിൻ്റെ ബാക്കിലായിട്ട് കുറച്ച് ഡെക്കറേഷൻ പിന്നെ ഫ്രണ്ട് സ്റ്റേജിൽ തന്നെ ഫ്രണ്ടിൽ അഞ്ച് ലൈറ്റ് വച്ച് ഡെക്കറേഷൻസാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ആ അതെ അതെ ആ ഓക്കെ അപ്പോൾ പിന്നെ ഞാൻ അവിടെ കേക്ക് വയ്ക്കുന്ന ടേബിൾ ഒക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ചുറ്റും ഡെക്കറേറ്റ് ചെയ്യണം കേട്ടോ ആ ഡെക്കറേറ്റ്

അതെ അ ആ എനിക്ക് അപ്പോ റെഡില് എന്തായാലും എനിക്ക് റെഡ് ബൗസെന്നെ വേണംട്ടാ

ആ ജാസ്മിൻ ആയാലും കുഴപ്പമൊന്നും ഇല്ല അപ്പോൾ നല്ല മണം ഉണ്ടാകുമല്ലോ ഫുള്ള് ആ അതാണ് വേണ്ടത് അ ആ

ഓക്കെ ഓക്കെ ഉണ്ടാവും ഉണ്ടാവും ആ വീട്ടിൽ തന്നെയാണ് ഞാൻ അഡ്രസ്സും കാര്യങ്ങളൊക്കെ വാട്സ്ആപ്പ് ചെയ്യാം പിന്നെ എനിക്ക് ഇതിൻ്റെ ഒരു അപ്പ്രോക്സിമെറ്റ് റേറ്റ് ഒക്കെ ഒന്ന് അറിയാൻ പറ്റുമോ ഓക്കെ

ആ ആ ഒക്കെ അപ്പോൾ നാളെ എല്ലാ ഇതും സെറ്റ് അയക്കില്ലേ ആ ഓക്കെ താങ്ക് യു